ആ മേഡം നമസ്ക്കാരം ആ ഞാൻ ഒരു ഇൻഷൂറൻസിൻ്റെ കാര്യമായിട്ട് വന്നതാണെ ആ അപ്പോൾ ഒരു പുതിയ ഇൻഷൂറൻസുണ്ട് നമ്മുടെ കയ്യില് ഒരു പാക്കേജുണ്ട് അപ്പോൾ ആ ഒരു പ്രോഡക്റ്റിനെ ക്കുറിച്ച് നമ്മള് ആ പരിചയപ്പെട്ത്താൻ വേണ്ടി ഇപ്പോൾ ന്യൂ ലൈഫ് എന്നാണ് ഇൻഷൂറൻസിൻ്റെ ആ പ്രൊഡക്റ്റിൻ്റെ പേര് ഇൻഷൂറൻസിൻ്റെ ഓക്കെ അപ്പോൾ അത് ചേരാൻ താൽപര്യമുണ്ടോ എങ്ങനെയാണ് ഇൻഷൂറൻസ് വല്ലതും നോക്കുന്നുണ്ടോ ആ നമുക്ക് ഫുൾ ലൈഫ് ലൈഫിന് വേണ്ടി ലൈഫ് ഇൻഷൂറൻസ് തന്നെയാണ് സംഭവം ഓക്കെ അപ്പോൾ നമുക്കിപ്പോൾ നമ്മടെ ലൈഫിനെ ബാധിക്കുന്ന എല്ലാത്തിനും നമുക്ക് ഇൻഷൂറൻസ് ക്ലൈമെയ്യാൻ പറ്റും ടോട്ടല് ആ ടോട്ടല് ഇരുപത് ലക്ഷത്തിൻ്റെയാണ് ഇൻഷൂറൻസ് പാക്കേജ് വരുന്നത് നമ ആ പിന്നെ ഈ ആ ക്ലൈം നമുക്കിപ്പോൾ ആക്സിഡൻറ്റ് അങ്ങനെ ഒക്കെ പറ്റീന്ന് പറഞ്ഞാലോ എന്ത് അപകട മരണത്തിലൂടെയും നമുക്കത് ക്ലൈമാവും ക്ലൈമ് ചെയ്യാൻ പറ്റും നമുക്ക് ആക്സിഡൻറ്റ് പറ്റിയത് കാരണം നമ്മടെ നോമിനിക്ക് നോമിനി വേണം അപ്പോൾ നോമിനിക്ക് കിട്ടുന്ന പോലെയാണ് ഇതിൻ്റെ പ്രൊസീജിയറ് വരുന്നത് അല്ലെങ്കിൽ ആക്സി ആ ആ രോഗം വന്ന് മരണപ്പെടുകയാണെങ്കിലും കിട്ടും അത് രോഗമെന്ന് പറഞ്ഞാൽ ഈ വാർദ്ധക്യമായിട്ട്ളള രോഗങ്ങളല്ല പെട്ടന്ന് യാദൃഷ്ടികമായിട്ട് പെട്ടന്ന് എന്തെങ്കിലും അസുഖം വരിക അങ്ങനെ അത്മൂലം മരണപ്പെടുക അങ്ങനെ വയസ്സായിട്ട് പനിയെന്തെങ്കിലും വന്നിട്ട് അങ്ങനെ മരണപ്പെട്ടൂന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലയിമെയ്യാൻ പറ്റില്ല യാദൃഷ്ടികമായിട്ട് പെട്ടന്ന് എന്തെങ്കിലും അസുഖം വന്നിട്ട് നമ്മള് മനുഷ്യബോഡി ആണല്ലോ അങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ നമുക്കിത് ക്ലെയ്മെയ്യാൻ പറ്റും നമുക്കിത് ചേരാൻ ഏജ് ലിമിറ്റ് വരുന്നത് ഇരുപത്തഞ്ച് വയസ്സ് തൊട്ട് അൻപത്തഞ്ച് വയസ്സ് വരെ ഓക്കെ ഇരുപത്തഞ്ച് വയസ്സിനുള്ളിൽ അൻപത് ആ അടവ് അടയ്ക്കുകാന്ന് പറഞ്ഞാൽ നമുക്ക് ആറ് മാസം കൂടുമ്പോൾ രണ്ടായിരം രൂപ വെച്ചിട്ടാണ് അടവ് വരുന്നത് പതിനഞ്ച് വർഷം ആറ് മാസം കൂടുമ്പോൾ രണ്ടായിരം രൂപ വെച്ചിട്ട് പതിനഞ്ച് വർഷത്തേക്കാണ് അടവ് വരുന്നത് ഈ അടവ് കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് ആയി പറഞ്ഞാൽ നിങ്ങൾക്ക് ആക്സിഡനൻറ് മരണത്തിൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റും ആയി വന്ന് പറഞ്ഞാൽ നമുക്കത് ആ ഇരുപത്തഞ്ച് ആ ഇരുപത് ലക്ഷം നമുക്ക് നോമിനിക്ക് കിട്ടുന്നതാണ് ഒരാഴ്ച്ച ഗ്യാപ്പില് നമുക്കത് കിട്ടും ക്ലെയിമായി കിട്ടും ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ നമക്കൊരാഴ്ചയ്ക്കുള്ളിൽ ക്ലെയിമെയ്യാൻ പറ്റും പിന്നെ അതേപോലെ അപ്പോൾ ആക്സിഡന്റായി ഭാഗികമായിട്ടാണ് തളരാണ് ഇപ്പോൾ കയ്യോ കാലോ ഒടിയാ അല്ലെങ്കിൽ ഭാഗികമായിട്ട് തളരാണെങ്കിൽ നമക്ക് അപ്പഴും നമുക്ക് പൈസ കിട്ടും അത് ഭാഗികമായിട്ടാണെങ്കിൽ ഇൻഷൂറൻസിൻ്റെ പകുതി തുക പത്ത് ലക്ഷം രൂപ കിട്ടും

ഇതിനിപ്പോൾ ചേരാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടത് ആധാർ കാർഡ് വേണം അതേപോലെ പാൻ കാർഡ് ബാങ്ക് പാസ്ബുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം ഫോട്ടോയും വേണം രണ്ട് ഫോട്ടോയും വേണം ആ ഡയറക്റ്റായിട്ട് ഇങ്ങ ഒരിക്കൽ വന്നിട്ട് ഈ സാധനങ്ങളൊക്കെയായിട്ട് വന്നാലും മതി ആ പിന്നെ ഒരുദിവസം വന്നാലും മതി വരുമ്പോൾ ആദ്യത്തെ രണ്ടായിരം രൂപ രണ്ടായിരം രൂപ കൊണ്ടുവരണം അതേപോലെ ഈ സാനങ്ങളുടെയൊക്കെ ഫോട്ടോ കോപ്പീം വേണം ആ ആറ് മാസം കയിഞ്ഞിട്ട് പിന്നെ അടവ് അടക്കണം ഓക്കെ അല്ലേ ക്ലിയറല്ലെ ഓക്കെയാണ് അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഫോട്ടോ കോപ്പിയൊക്കെ ആയിട്ട് വന്നാൽ മതി ഓക്കെ ശരി